മലയാളഭാഷയെക്കുറിച്ച് പൊതുവായിട്ടുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് എന്താ ചോദിച്ച് കഴിഞ്ഞാല് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് കൂടുതലായിട്ട് മലയാളത്തിനൊരു പ്രാധാന്യം അത് കൊടുക്കുന്നില്ല പിന്നെ പിന്നെയുള്ള കാര്യമെന്നു പറഞ്ഞാല് രക്ഷിതാക്കള് കൂടുതലും കുട്ടികളെ എന്താണു പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നു പറഞ്ഞാല് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് മീഡിയത്തില് ചേർക്കണം ഞങ്ങളുടെ കുട്ടികള് നല്ല വിദ്യാഭ്യാസം നേടണമെങ്കില് ഇംഗ്ലീഷ് മീഡിയത്തില് പഠിച്ചാലേ വിദ്യാഭ്യാസമൊക്കെ കിട്ടുള്ളൂ പിന്നെ ഉയർന്ന ജോലിക്കും അതിനൊക്കെ പറ്റുള്ളൂ ഒരു കൂടുതലായിട്ട് എന്താണ് അതിലേക്ക് എന്താണ് മലയാളം പഠിച്ചുകഴിഞ്ഞാല് അങ്ങനൊരു മേഖലയിലെത്തിച്ചേരില്ല അത് പഠിച്ചുകഴിഞ്ഞാല് അതുകൊണ്ടൊരു ഗുണം ഇല്ല എന്നുള്ള ചിന്തിക്കുന്ന ആളുകളാണ് പൊതുവെ ഈ നാട്ടിലുള്ളത് പിന്നെയുള്ള കാര്യം എന്താച്ച് കഴിഞ്ഞാല് എന്താ നമ്മുടെ മാതൃഭാഷയ്ക്കു നമ്മള് കൂടുതലായിട്ടൊരു പ്രോത്സാഹനം കേരളത്തില് കൊടുക്കുന്നില്ല ഒന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അപേക്ഷിച്ച് അവരുടെ മാതൃഭാഷയാണവര് കൂടുതലായിട്ടും അവരുടെ പരീക്ഷകളൊക്കെ നടത്തുമ്പോഴും അവരതില് അവര് എന്താണ് പ്രാധാന്യം കൊടുക്കുന്നവരെ മാതൃഭാഷയ്ക്കാണ് പക്ഷെ കേരളത്തില് മാതൃഭാഷയ്ക്കത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല ഇംഗ്ലീഷ് ഭാഷയ്ക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോള് കുട്ടി ഇതില് എന്താണു ചെയ്യേണ്ടതെന്നു ചോദിച്ചുകഴിഞ്ഞാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് മലയാളത്തിനൊരു ഒരിടം തന്നെ കൊടുക്കണം ആ ഭാഷയ്ക്ക് ആ ഭാഷ ഉച്ചരിക്കുന്ന രീതികളും ആ എന്താണ് പഠിപ്പിക്കുന്ന രീതികളിലൊക്കെ മാറ്റം വരുത്തണം അങ്ങനെ